ഇപ്പോൾ എല്ലായിടത്തും മീനുകളുടെ ഉൽപ്പന്നങ്ങൾ ഉണ്ട് കുറേതരം ഉൽപ്പന്നങ്ങളുണ്ട് അതിലിപ്പോൾ കഴിക്കുന്ന അതായത് നാട്ടിൻപുറത്തെ പശുവിൻ്റെ പാൽ കൊണ്ടുവന്ന് സൊസൈറ്റിയിൽ കൊടുത്ത് സൊസൈറ്റിയിലേക്ക് കൊടുത്ത് കമ്പനികളിലെടുത്ത് അവിടെനിന്ന് പലതരം പ്രൊസസ്സ് കഴിഞ്ഞിട്ടാണ് മൃഗങ്ങളുടെ ഓരോരോ കഴിക്കുന്ന ഭക്ഷണങ്ങളുണ്ടാക്കുന്നത് അങ്ങനെ കുറേതരമുണ്ട് അതേപോലെ മൃഗങ്ങളെ കൊല്ലുന്നതാണെങ്കിലും ശുദ്ധീകരിച്ചിട്ട് അതേപോലെ കമ്പനിയിൽ കൊണ്ടുപോയി നല്ല പ്രൊസസ്സൊക്കെ നടത്തി ശുദ്ധീകരിച്ചിട്ടാണ് നമ്മുടെ മാർക്കറ്റിലെത്തുന്നത് അതാണ് നമ്മൾ വാങ്ങുന്നത് കഴിക്കുന്നതും ഇതൊക്കെ കുറേ കുറേ പ്രൊസസ്സുകളിൾ കൂടിയാണ് പോയി നമ്മൾ നമ്മളുടെ നമ്മളുടെ കയ്യിലെത്തുന്നതും കുറേ ശുചീകരണവും അതേപോലെ കുറേ സാധനങ്ങൾ അതിൻ്റെ കൂടെ ചേർത്തിട്ടുമാണ് ഈ പ്രൊസസ്സൊക്കെ നടത്തുന്നത് ഇതിലൂടെയാണ് നമുക്ക് നമ്മുടെ കയ്യിൽ കിട്ടുന്നതും അവർക്ക് പണം കിട്ടുന്നതും കുറേതരം പ്രൊസസ്സുകളുണ്ട് നമുക്ക് അറിയുന്നതും അറിയാത്തതുമായ കുറേ പ്രോസസ്സുകളുണ്ട് അറുക്കുന്നതും കഴുകുന്നതും വൃത്തിയാക്കുന്നതുമൊക്കെ വാങ്ങുന്നത് മുതൽ നമ്മൾ പണം കൊടുക്കുന്നത് വരെയുണ്ട് ഇതൊക്കെയാണ് ഇതിൻ്റെ പ്രോസസ്സുകൾ